കാസർഗോഡ് ജില്ല സപ്തഭാഷ സംഗമഭൂമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പല ഭാഷകളും സംസാരിക്കുന്ന ആൾക്കാരുണ്ട് പല ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഏഴ് ഭാഷകൾ ഇപ്പം കൊങ്കണി മലയാളം ഞങ്ങളുടെ കാസർഗോഡ് ബ്യാരി തുളു കന്നഡ എല്ലാ ഭാഷയും സംസാരിക്കുന്ന ആള് ള്ളതാണ് ഞങ്ങളുടെ കാസർഗോഡ് ജില്ല മനോഹരമായ ഒരു ജില്ലയാണ് പല മതത്തില് മതം എന്ന് പറഞ്ഞാല് ഹിന്ദു മുസ്ലിംമ് ക്രിസ്ത്യാനി എല്ലാ മതങ്ങളും ഒന്നിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയിലെ ഭാഷാവൈവിധ്യം ഞങ്ങളെ എല്ലാടയിത്തും അറിയപ്പെടുന്നതാണ് മതത്തിൻ്റെ സൗഹാർദവും എല്ലാ സ്ഥലത്തും പോയാലും പറയുന്നതാണ് ബ്യാരി ഭാഷ സംസാരിക്കുന്ന ആൾക്കാറും ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിലുണ്ട് ആചാരങ്ങളെന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഓരോ മതത്തിനും ഓരോ ആചാരങ്ങള് ഞങ്ങള് ഒന്നിച്ചിട്ട് അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഭാഷകളിലെ വൈവിധ്യം ഞങ്ങളെ ഒന്നിച്ച് ചേർക്കുന്നുണ്ട് ഹിന്ദു മുസ്ലിംമ് ക്രിസ്ത്യാനി ഭേദങ്ങളില്ലാതെ എല്ലാ പരിപാടികളും ഓണം വന്നാലോ എല്ലാവരും ഒന്നിച്ചിട്ട് ആഘോഷിക്കും മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും ഒന്നിച്ചിട്ട് ആഘോഷിക്കുന്നതാണ് ഞങ്ങളുടെ നാടിൻ്റെ പാരമ്പര്യം ഞങ്ങളുടെ കാസർഗോഡിലെ ഉണ്ടാവുന്ന പല പ്രവാസി കേന്ദ്രങ്ങളിലും എല്ലാവരും മതഭേദമില്ലാതെ ഒന്നിച്ചിട്ട് പോവാറുണ്ട് ബേക്കൽ ഫോർട്ട് പൊസടിഗുമ്പെ എന്നുള്ള സ്ഥലത്ത് ഞങ്ങള് പോയാല് ഇന്ന മതത്തിൻ്റെ ആൾക്കാറ് അങ്ങനെയൊന്നുമില്ല എല്ലാ മതത്തിൻ്റെ ആൾക്കാർക്കും കൂടിയിട്ട് പോകുവാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ബേക്കൽ ഫോർട്ട് പൊസടിഗുമ്പെ ഇങ്ങനെ റാണിപുരം ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾക്കുള്ള സന്തോഷങ്ങൾ ഞങ്ങൾ പങ്കുവെക്കാറുണ്ട് കാസർഗോഡിൻ്റെ മഹിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗഡിയുടെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ ഭാഷ ഞങ്ങളുടെ ഈ കാസർഗോഡ് ജില്ല ഉള്ളത് കർണാടക ഗഡി അതുകൊണ്ടുതന്നെ കർണാടക മിക്സായിട്ടുള്ള ഒരു ഭാഷയാണ് ഉള്ളത് ഉപ്പള തലപ്പാടി എത്തുമ്പോൾ നക്ക് നിക്ക് ഭാഷയെല്ലാം മിണ്ടുന്നത് കേൾക്കാം നക്ക് നിക്ക് ഭാഷകളും ഈ കാസർഗോഡ്

ഭാഷായെന്ന് പറയുമ്പം നമുക്ക് ഓടക്ക് പോയീനത് ഓടക്ക് പോയീനേന്ന് ചോദിച്ചാല് എവിടെ പോയിന് അപ്പോൾ ഞങ്ങള് കാസർഗോഡില് ഏടൊക്ക പോയീനത് പിന്നെയും കാസർഗോഡിൻ്റെ അറ്റത്ത് പോകുമ്പോൾ അതായത് ഈ കാഞ്ഞങ്ങാട് എത്തുമ്പം ഏടപ്പോയിന് എന്നുള്ള രീതിയിലാവും പല രീതിയിലുള്ള സ്ലാങ്കാണ് ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ ഉള്ളത് കാസർഗോഡ് ജില്ലയില് കൂടുതലും എല്ലാ മതത്തിൻ്റെ ആൾക്കാറും മുസ്ലിം മതം അനുകരിക്കുന്ന ആൾക്കാർ കൂടുതൽ ഉണ്ടെങ്കിലും എല്ലാ മതത്തിൻ്റെ ആൾക്കാരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ആഘോഷങ്ങളില് എല്ലാവരും ഒന്നിച്ചിട്ട് പങ്കെടുക്കാറുണ്ട് മത ഭാഷ വ്യത്യാസങ്ങൾ ഇല്ലാതെ എല്ലാ സമ്പ്രദായങ്ങളും സമ്പ്രദായങ്ങളും പണ്ടുമുതലേ ചെയ്തുവന്ന സമ്പ്രദായങ്ങളും നല്ല രീതിയിൽ തന്നെ ഇവിടെ പോകുന്നുണ്ട് പിന്നെ വിദേശത്ത് ആൾക്കാറ് കൂടുതലും ആണ് ജോലി ചെയ്യുന്നത് കാസർഗോഡിലുള്ള ആൾക്കാറ് അത് അതിൻ്റെതായ പുരോഗമനം ഈ കാസർഗോഡ് ജില്ലയില് കാണുന്നുണ്ട് ഇവിടത്തെ പാരമ്പര്യവും സംസ്കാരവും പറയുന്നുണ്ടെങ്കില് വാക്കുകൾ അതീതമാണ് എന്താണെന്ന് പറഞ്ഞാല് അച്ഛൻ അമ്മ കുടുംബം കുടുംബം എന്ന് പറഞ്ഞാല് അച്ഛൻ അമ്മയും ഒന്നിച്ചിട്ടുള്ള കുടുംബമാണ് എല്ലാ വീടുകളിലും ഉള്ളത് ആ ആരും അണുകുടുംബത്തിലോട്ടു കൂടുതലും പോകുന്നില്ല കാസർഗോഡ് ജില്ലയില് അച്ഛനും അമ്മയും മക്കളും എല്ലാം ഒന്നിച്ചിട്ട് തന്നെ താമസിക്കുന്നത് പലവിധ ആശ ആചാരങ്ങളും മതഭേദമില്ലാതെ ആഘോഷിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിലുള്ള ആൾക്കാറ് പിന്നെ ഇവിടെ യക്ഷഗാനം പിന്നെ ബൊമ്മയാട്ടമൊക്കെ കാണപ്പെടുന്നുണ്ട് ഇതെല്ലാം അറ്റത്താണ് അറ്റത്ത് എന്ന് പറഞ്ഞാൽ ഗഡിയിലാണ് കാണപ്പെടുന്നത് ബൊമ്മയാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അത് ഒരു പപ്പെട്ട് ഞങ്ങൾ അങ്ങനെ പറയും പപ്പെട്ട് അതായത് കൈകൊണ്ട് നൂല്ല് കെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഞങ്ങളുടെ അനുഷ്ഠ കലകളെ പണ്ടത്തെ കഥകളായാലും ആനിമൽ രൂപത്തില് അതിൻ്റെ കഥ പറയുന്നുണ്ടെങ്കിലും എല്ലാം ഞങ്ങളുടെ ഈ പപ്പെട്ടിനെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇത് വളരെ പ്രസിദ്ധമാണ് കർണാടകയിലും തമിഴ്നാട്ടിലും ബൊമ്മയാട്ടം എന്ന് പറയും പിന്നെ യക്ഷഗാനം യക്ഷഗാനം കർണാടകയിലെ മെയിനാണ് ഞങ്ങളുടെ കാസർഗോഡ് ജില്ല ഗഡി ആയതുകൊണ്ട് കാസർഗോഡിലും യക്ഷഗാനം ഫേമസാണ് അപ്പോൾ ഈ കാസർഗോഡ് എന്ന് പറഞ്ഞാല് സപ്തഭാഷ സംഗമഭൂമി ഏഴ് ഭാഷകളും പല മതത്തിൻ്റെ ആൾക്കാറും പല ആചാരങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ല ഗഡി പ്രദേശത്തിൻ്റെ അടുത്തായതു കൊണ്ട് തന്നെ കർണാടകയിലുള്ള ആൾക്കാറുകൾക്കും ആൾക്കാറുകള് കാസർഗോഡ് ജില്ലയിലും ജോലി ചെയ്യുന്നു ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിയ്ക്ക് പോകുന്നുണ്ട് ആൾക്കാരുടെ സൗഹാർദ്യം വളരെ നല്ലതായിട്ടാണ് ഉള്ളത് കാസർഗോഡ് ജില്ലയില് പിന്നെ കർണാടക സംഗീതം കാസർഗോഡ് ജില്ലയിലെ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാല് അതിനെക്കുറിച്ചിട്ട് ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട് കാരണം കർണാടക സംഗീതം ശാസിക്കുന്നത് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൻ്റെതായ സംഗീതത്തിന് കർണാടക സംഗീതം ഇവിടെ നിന്ന് പോയിട്ട് മാംഗ്ലൂറും കർണാടകയിലും പോയിട്ട് പഠിക്കുന്ന ആൾക്കാറുണ്ട് എല്ലാം ഇവിടേയും പ്രസിദ്ധമാണ് കർണാടക സംഗീതം ബോമ്മയാട്ടം കൂടിയാട്ടം പിന്നെ ഒപ്പന ഒപ്പണയെന്ന് പറയുമ്പം മുസ്ലിം സഹോ ദരിന്മാർ കൂടുതലുള്ളതുകൊണ്ട് ഒപ്പനയും സ്കൂളുകളിലും അല്ലാതെയും നടത്താറുണ്ട് അതില് മികവ് തെളിയിച്ച ആൾക്കാറാണ് ഞങ്ങളുടെ കാസർഗോഡിലെ പെൺകുട്ടികള് കലോത്സവവേദികളിലും ഉഷാറായിട്ട് ഡാൻസ് കളിക്കുന്ന അതായത് ഒപ്പന കളിക്കുന്ന ആൾക്കാറാണ് ഞങ്ങളുടെ കാസർഗോഡിലെ കാസർഗോഡിനെക്കുറിച്ചിട്ട് പറയുമ്പോഴേക്ക് സന്തോഷം മാത്രം മതം മതം ഭാഷ ആചാരങ്ങൾ സമ്പ്രദായങ്ങൾ എല്ലാം നല്ല രീതിയില് പോകുന്ന ഒരു ജില്ലയാണ് കാസർകോട് ജില്ല മറ്റ് ജില്ലയിനെ തൊട്ടു നോക്കുമ്പോഴ് ഭാഷകളുടെ വൈവിധ്യം ഭയങ്കരമാണ് എല്ലാ ഭാഷ അറിയും മറ്റു ജില്ലകളിൽ എത്രത്തോളം ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുള്ളത് അറിയില്ല ഞങ്ങളുടെ കാസർഗോഡ് ഭാഷയെന്ന് പറഞ്ഞാല് മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാണ്